പൊതുവേ നമ്മുടെ നാട്ടിൽ ചൂട് തണുപ്പും മഴയൊക്കെ ഇങ്ങനെ മാറി മാറി വരും കാലാവസ്ഥകളിങ്ങനെ ഒന്നങ്ങിനെയും ഒന്നങ്ങനെയും മാറി മാറി വരാറുള്ളതാണ് നമ്മൾ ഓടുമ്പോൾ ഇപ്പോൾ ചൂട് കാലമാണെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കണം ഓടുമ്പോൾ അതേപോലെ വെയിൽ വരുന്നതിന് മുൻപ് തന്നെ കൂടെ വർക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം ഓടാൻ ശ്രമിക്കണം വെയിലത്തോടാനും സൂര്യാഘാതം ഏൽക്കാനും നിൽക്കാതെ നേരത്തെ തന്നെ ഓടാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം അതൊക്കെ നല്ലതാണ് ചൂട് കാലത്തൊക്കെ അതേപോലെ വെള്ളം നല്ലവണ്ണം കുടിക്കുക അതേപോലെ കുളിക്കാണെങ്കിലും അതാത് സമയത്ത് ചെയ്ത അത് നന്നായിരിക്കും അതിനനുസരിച്ച് തണുപ്പ് കാലത്താണെങ്കിൽ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യുന്നതു കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല തണുപ്പ് കാലത്ത് നമ്മളതിനനുസരിച്ച് തലയിൽ തൊപ്പിയൊക്കെയിട്ട് ഓടി വരണ അത് നമുക്ക് മഞ്ഞ് നിന്ന് രക്ഷനേടാനും അതേപോലെ ജലദോഷം ഒന്നും വരാതിരിക്കാനും സാധിക്കും ഇങ്ങനെയുള്ള നുറുങ്ങ് വഴികളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് മഴയാണെങ്കിൽ നമുക്ക് മഴക്കോട്ട് ഇട്ട് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വെള്ളം ഉള്ളിൽ കയറാത്ത രീതിയിലുള്ള തൊപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇട്ട് ഓടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ രക്ഷ നേടാനൊക്കെ സാധിക്കാവുന്നതാണ്